ഹലോ ആ ഇത് ഇത് സാഞ്ചസാണ് ഞാൻ ആ ഞാൻ മൂന്നാറിലേക്ക് പോകാൻ ഒരു പ്ലാനുണ്ട് അപ്പം നിങ്ങള് മൂന്നാറിലേക്കുള്ള ട്രിപ്പ്സ് പാക്കേജൊക്കെ കൊടുക്കുമെന്ന് എൻ്റെ കൂട്ടുകാരൻ വഴി അറിഞ്ഞായിരുന്നു അപ്പോള് അതിന്റെയൊരു ഡീറ്റെൽസ് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞാനൊരു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്കും ഒരു ഫാമിലി ഗ്യാതറിങ്ങാണ് അപ്പം എല്ലാവർക്കുംകൂടെ ഒന്ന് ആ ഒരു ഒരു ഫോർട്ടി ആൾക്കാരൊക്കെ കാണും എല്ലാവരുംകൂടെയൊന്ന് മൂന്നാറ് പോകാനാണ് ഒരു ഗെറ്റെവേക്ക് ഒരു ട്വൻറ്റി തേർഡ് ജാനുവരി എന്ന് അങ്ങനെയങ്ങ് കൂട്ടിക്കോളൂ ഒരു അ ഒരു എസ്റ്റിമേറ്റ് പറയുകയാണെങ്കില് ഒരു ഫോർട്ടി ഫിഫ്റ്റി കാണും ചിലപ്പോള് കൂടുതലായിരിക്കും അത് ഡീറ്റൈൽസ് പിന്നെ പിന്നെ വിളിച്ച് പറഞ്ഞാലും പോരെ എങ്കില് അത് ഞങ്ങള്ക്കൊരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയാണ് വിളിക്കുന്നത് ഇപ്പോള് ഒരു ഇത് അല്ലല്ല നിങ്ങളുടെ പാക്കേജ് അനുസരിച്ച് എനിക്കൊരു പാക്കേജും കൂടെയൊന്ന് കേള്ക്കണമായിരുന്നു എന്നുവെച്ചാല് ഇപ്പം ഞങ്ങളുടെ ചിലപ്പം എക്സ്റ്റൻഡാകാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കില് പിന്നെ നിങ്ങളുടെ മിനിമം എത്ര ദിവസമാണ്

ഒരു മൂന്ന് ദിവസമെന്ന് കൊടുത്തോളൂ ഒരു വീക്കെൻഡ് ഗെറ്റെവേ പോലെയാണ് അതെ അതെ അതെ നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ കണക്ഷൻസുണ്ടോ ഹോട്ടലോ അങ്ങനനെയെന്തെങ്കിലുമൊക്കെ ആ ഓക്കെ അപ്പോള് അവിടുത്തെ ഇപ്പ ഈ ഫുഡും അതെല്ലാം അവിടെ നിങ്ങള് പ്രൊവൈഡ് ചെയ്യുമോ അതോ ഞങ്ങള് വേറെ നോക്കണോ വണ്ടിയില് ഇപ്പം ആൾക്കൂട്ടമുണ്ടാകും ഫോർട്ടി ഫിഫ്റ്റി ആൾക്കാരാണെന്നല്ലെ ഞാൻ പറഞ്ഞത് അപ്പോള് അങ്ങനെയാണെങ്കില് ഞങ്ങൾക്ക് ഏത് ട്രാവലറാണോ ബസ്സാണോ ഞങ്ങൾക്ക് ഭേദം അതെയല്ലെ ആ അല്ല ഇപ്പോള് രണ്ട് ട്രാവലറല്ലേ അപ്പോള് ട്രാവലറിൽ ആൾക്കാര് കുറവ് ഇപ്പം നാല്പ്പത് പേരല്ലേ അപ്പോള് അതിനനുസരിച്ച് ട്രാവലറുടെ എണ്ണം കൂടുമല്ലോ അപ്പം അങ്ങനെ എക്സ്പെൻസ് കൂടില്ലേ ആ ബസില് എത്ര പേര് കാണും ബസിൽ ഐ മീൻ ബസിലൊരു എത്ര സീറ്റ് കാണുമായിരിക്കും അപ്പോള് ഒരു ബസ് മതി ഞങ്ങൾക്ക് അപ്പ അങ്ങനെയാണെങ്കില് അപ്പോള് ബസ്സാണ് ഞങ്ങൾക്ക് ബസ്സായിരിക്കും പ്രഫെറബിള് ത്രീ ഡേ പാക്കേജാണ് ആ അതിന് അതിന് വരുന്ന അതിൻ്റെ കൂടെ അല്ല ടെൻ തൗസൻഡ് അതിന് വ്യത്യാസം എന്തായിരിക്കും ആ ഹാ ആ അല്ല ഇപ്പോള് ടെൻ തൗസൻഡ് ഇത്തിരി കൂടുതലല്ലേ ആ ഹാ ആ ഓക്കെ എന്നാല് നമുക്ക് നേരിട്ട് കാണാം ആ ഓക്കെ ഓക്കെ എന്നാല് എന്നാല് നേരിട്ട് കണ്ട് സംസാരിക്കാം

പ്രീ ബുക്കിങ്ങിന് എത്രയായിരിക്കും ആ ഞങ്ങള് ആ അപ്പോള് അഡ്വാൻസ് ബുക്കിങ് ഞങ്ങളെന്തായാലും ചെയ്യേണ്ടിവരുമല്ലേ ആ ഓക്കെ അത് നോക്കാം അത് നോക്കി നോക്കാം അതെതെതെ ഓക്കെ ഒക്കെ നോക്കാം ഞാനിവിടെ കുട്ടിക്കാനം ആ ആ നമുക്ക്